ഇന്ത്യ എന്ന രാജ്യത്താദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് സ്പോർട്സിനോടുള്ള താത്പര്യങ്ങളും അതിനോടവരെ കൊണ്ടു വരാനുള്ള സാദ്ധ്യതകളും വളരെ വളരെ കുറവായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ത്രീകളെല്ലാ മേഖലകളിലും അവരവരേതായ കയ്യൊപ്പുകൾ പതിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് മേഖലകളും സ്ത്രീകളവരുടെ വളരെ എന്താണ് സുദീർഘമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഏതു സ്പോർട്സ് ഐറ്റംസ്സുണ്ട് അത്ലറ്റിക്സാണെങ്കിലും ക്രിക്കറ്റ് ഫുട്ബോൾ പോലെയുള്ള കാര്യങ്ങളിലാണെങ്കിൽപ്പോലും സ്ത്രീകളിന്ത്യയിൽ നിന്നും വളരെ ഇതായിട്ട് സപ്പോട്ടീവ് ആയിട്ട് ശ മുന്നോട്ടു പോകുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഒരു ഒളിമ്പിക്സ് നടക്കുന്ന സ സ്ഥലത്ത് ഇന്ത്യക്കാദ്യമായിട്ട് മെഡൽ കിട്ടിയിത് ഒരു വനിതയിൽ നിന്നാണ് ഷൂട്ടിങ്ങിൽ നിന്ന് അപ്പം എന്താണ് നമ്മുടെ ഇന്ത്യേന് സംബന്ധിച്ചിടത്തോളം പൊതുവേ സ്പോട്സിനു സ്ത്രീകൾക്ക് അതിൻറ്റേതായ സപ്പോട്ടുകൾ വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഈ പ്ലസ് ടൂവിൽ പത്തിൽ പഠിക്കുന്ന ടീനേജേർസ് മുതൽ സ്പോർട്സിനോടു വളരെ താത്പര്യം കാണിക്കുന്ന കുട്ടികളെ എനിക്കറിയാം എൻ്റെ കുടുംബാംഗങ്ങൾ കുടുംബത്തിൽ പെട്ട ആൾക്കാരുണ്ട് എനിക്കറിയാവുന്നതിൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹോദരിമാർ കാര്യങ്ങളൊക്കെ ഒരുപാടാൾക്കാർ സ്പോട്സുമായിട്ട് വളരെ അധികം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് പക്ഷേ പലപ്പോഴും സ്ത്രീകൾക്കുണ്ടാകുന്നൊരു പ്രശ്നമെന്നു പറയുന്നതു വരെ ഫിസിക്കലായിട്ടുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചിലപ്പം കായിക മായിട്ടുള്ളവർക്ക് മുന്നോട്ടുള്ള ഇതിനേ ബാധിക്കാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന അല്ലെങ്കിലാ ഒരു പോഷക ആഹാരങ്ങളുടെയും അല്ലെങ്കിലതുമായിട്ടുള്ള ബന്ധപ്പെട്ട ശരീരം നല്ല രീതിയിൽ മുന്നോട്ടു മേയ്ൻൻ്റെയിൻ ചെയ്യുന്നതു കൊണ്ടു തന്നെ ആ ഒരു പ്രശ്നം ഇപ്പോൾ വളരെ കുറവെന്നുള്ള രീതിയിൽത്തന്നെയാണ് കാണുന്നത് ഇന്ത്യയിലേ സ്ത്രീകൾക്ക് കായിക അവസരങ്ങളൊരുപാടു തന്നെ ഇപ്പോളൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാ കൊറ്റുക്കുന്നുണ്ട് സർക്കാറിൻ്റെ ഭാഗത്തൂന്നാണെങ്കിലും ഫാമിലിയുടെ ഭാഗത്തൂന്നാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഫാഗത്തു നിന്നാണെങ്കിലും വുൾസ് ഒരു സ്ത്രീയല്ലെങ്കിൽ പുരുഷനെന്നുള്ളൊരു വേർതിരിവ് ഇപ്പോളൊരു കാര്യത്തിൽത്തന്നെ കാണിക്കാറില്ല പൊതുവേ കാണിക്കാറില്ല പക്ഷേ എന്നാൽപ്പോലും വളരെ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയായിട്ടൊല്ലങ്ങിലാ ഒരെജ്യൂക്കേഷനത്ര പ്രോപ്പറായിട്ട് വരാത്ത ആ ഒരു സ്ഥലങ്ങളിൽ ഇപ്പോഴും ആ ഒരു സ്ത്രീകൾക്കാണ് ഒരു രീതിയിലേക്ക് മുൻപിലേക്കു വരാൻ പറ്റാത്തൊരവസരങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ എന്നാൽപ്പോലും അതു പൊതുവേ എല്ലാവരും പറയുന്നത് സ്ത്രീകൾക്കിപ്പോളവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽപ്പോലും ഈ പറഞ്ഞതു പോലെ തന്നെയാണ് ചില സ്ഥലങ്ങളിലല്ലെങ്കിൽ ചില ആൾക്കാർക്കിടയിൽ സ്ത്രീ ഇപ്പോഴും വീടുകളിൽത്തന്നെ ഒതുങ്ങി കൂടേണ്ടതാന്നുള്ളൊരു എജ്യൂക്കേഷനിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് ചില മതത്തിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ടും അങ്ങനെ കാണുന്നോരുണ്ട് പക്ഷേ അതു മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ഒരു സ്ത്രീകളുടെ സൈഡിൽ നിന്നാണെങ്കിലും മൊത്തത്തിലെല്ലാവരുടെയും ഏകീകൃതമായൊരിതു കൊണ്ടും മുന്നോട്ടു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്പോർട്സെന്നു പറയുന്നത് സ്പോർട്സ് ഈ പറഞ്ഞ ക്രിക്കറ്റിലാണെങ്കിലും ഇപ്പോൾ എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗെന്നു പറയുന്ന എന്താണ് ലോകത്തിലന്നേറ്റവും മികച്ച കായിക വിനോദങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂവർഷിപ്പുള്ളൊരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതു കഴിഞ്ഞ പതിനേഴ് വർഷമായി ആണുങ്ങളുടെ മാത്രമായിട്ട്

സ്ത്രീകൾക്കുള്ള വ്യൂവോൺസ് വുമൻസ് പ്രീമിയർ ലീഗ് തുടങ്ങുന്നു അതുപോലെയുള്ള എന്താണ് ഒളിമ്പിക്സിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ പല കായ് ഫുട്ബോളിലാണെങ്കിലും സ്ത്രീകൾക്കുള്ള പ്രാധാന്യം വളരെ അധികമായിട്ടു വർദ്ധിച്ചു കൊണ്ടിരിയ്ക്കാണ് കാരണം എന്നാൽ മേരീ ക്കം അതുപോലെ തന്നെ ഉള്ള ഒരുപാട് കായികമായിട്ടുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീ ജനങ്ങളെ നമ്മളെ രാജ്യത്തും അതുപോലെയുള്ള കേരളത്തിൽ നിന്നും ഒരുപാടഞ്ചു ബേബി ജോർജ് പോലെയുള്ള അല്ലെങ്കിൽ ഷൈനി വിൽസൺ പോലുള്ള ഒരുപാടാൾക്കാർ കേരളത്തിൽ നിന്നും അല്ലെ ഇന്ത്യയിൽ നിന്നും പണ്ടേയുണ്ട് ഇപ്പോഴും അതിൻ്റെ ആ എന്താണ് ആ ഒരു സ്ത്രീകൾ മുന്നോട്ടു വരുന്നതിൻ്റെ അളവു വളരെ അധികം മുൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്